ഇന്ത്യയിലെ ചില അറിയപ്പെട്ട യോഗ ഗുരുക്കൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാമി രാമ പിന്നെ ബീ കെ എസ് എലെയാങ്കര അങ്ങനെ ഈ പറഞ്ഞ ആൾക്കാരൊക്കെയാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഇവരുടെ ഈ യോഗ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടാണ് എനിക്ക് ഒരു ഇൻസ്പിരേഷൻ ആയത് ഐ മീൻ ഇവരുടെ എത്ര വയസ്സായിട്ടും ഇവരുടെ യോ മീനിങ്ങ് രോഗമില്ല അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ ഇപ്പോഴും മര്യാദക്ക് എണീറ്റ് നടക്കാൻ പറ്റുന്നു അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ യോഗ ചെയ്യുന്നതിലൂടെ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ യോഗ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തിന് നമുക്ക് വളരെ എനർജി അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ വീഡിയോസിൽ നിന്നും അങ്ങനെയുള്ളതൊക്കെ കണ്ടിട്ടാണ് ഞാൻ അറിഞ്ഞത് പിന്നെ സ്കൂളിൽ ഇടയ്ക്ക് ഇങ്ങനെ യോഗയ്ക്ക് ആരെങ്കിലും സ്ക്ളാ ക്ലാസ്സെടുക്കാൻ വരും അപ്പോൾ ഞങ്ങൾ ഇതേപോലെ പോകുമായിരുന്നു അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാലും അവർ നമുക്ക് കുറെ ടിപ്സ് ഒക്കെ പറഞ്ഞു തരും പിന്നെ അത് ചെയ്തു കഴിയുമ്പോൾ നമുക്ക് അന്നത്തെ ദിവസം വളരെ എനർജി ആയിട്ടായിരിക്കും തോന്നുക യോഗയെന്ന് പറയുമ്പം നല്ലൊരു കാര്യമാണ് അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എനർജി കിട്ടും പിന്നെ കുറെ രോഗത്തിൽ നിന്നും അങ്ങനെ പലതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനും പറ്റും